ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിള വരുന്നത് ജാതി നെല്ല് തെങ്ങ് റബ്ബർ ഇങ്ങനെ വാഴ വാഴ കൃഷി ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ നല്ലവണ്ണം ആദായം തരുന്ന ഒരു കൃഷിയാണ് വാഴ തന്നെ പല സൈസ് ഉണ്ട് ജാതിയുടെ തന്നെ ബഡ് ചെയ്ത ജാതിയുണ്ട് സാധാരണ നാടൻ ജാതിയുണ്ട് ജാതിക്കൊക്കെ ഇവിടെ നല്ല വിലയാണ് റബ്ബറിനും ഒരുവിധം എല്ലാം ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നെല്ല് നെല്ല് ആണെങ്കിലും പല സൈസ് നെല്ല് വിത്തുകളും വിതയ്ക്കാറുണ്ട് അതെല്ലാം കൊയ്ത് അത് ഞങ്ങളുടെ ഭക്ഷ്യാവശ്യത്തിനും എടുക്കും പിന്നെ ബാക്കി കൂടുതൽ ഉള്ളത് വി വിൽക്കും വിൽക്കും പുറമേക്ക് ഇവിടെയും കൊടുക്കും അതുപോലെ തന്നെ വാഴ ജാതി ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ അതാത് കാലയളവിൽ എടുത്തിട്ട് അതിൻ്റെ വേണ്ട വിധം ഉണക്കി പാകപെടുത്തി ഞങ്ങൾ പോർ പുറത്തേക്ക് കൊടുക്കും അതിനും നല്ല പൈസ തന്നെ കിട്ടാറുണ്ട് ഏറ്റവും കൂടുതൽ ജാതിയാണ് ഞങ്ങളുടെ നാട്ടിൽ വിള ചെയ്യുന്നത് പിന്നെ നെൽ വാഴയുണ്ട് പിന്നെ കപ്പ മര കിഴങ്ങ് എന്ന് പറയും ഞങ്ങളിവിടെ ആ കപ്പ കൃഷി ഞങ്ങൾക്കും നല്ലോണം ആദായം ഉള്ള ഒരു ഇതാണ് അത് ഉണക്കി വിൽക്കും പച്ചയ്ക്കും ആയിട്ട് ഞങ്ങൾക്ക് നല്ല കൃഷി ചെയ്യാറുണ്ട്